വിദ്യാഭാസം ചില പരമ്പരാഗത ആചാരങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്നു ചോദിച്ചാൽ അതിപ്പോൾ നമ്മൾ നോക്കി കാണുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള വശം ഉണ്ട് അതിന് നെഗറ്റീവായിട്ടുള്ളൊരു വശം ഉണ്ട് എന്താണെന്നു വച്ചാൽ നമ്മൾ വിദ്യാഭ്യാസം കിട്ടിയതിന്റെ ഭാഗമായിട്ട് പല തരത്തിലുള്ള അനാചാരങ്ങൾ നമ്മൾക്ക് തുടച്ചു നീക്കാന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വിദ്യാഭ്യാസം കൊണ്ടാണ് അത്തരം പല അനാചാരങ്ങളും തുടച്ചു നീക്കാന് കഴിഞ്ഞത് എന്നുള്ളതും വളരെ നല്ല ഒരു കാര്യമാണ് പിന്നെ പരമ്പരാഗത ആചാരങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്നു ചോദിച്ചാൽ പണ്ടുള്ള ആളുകള്ക്ക് അവരുടെ പരമ്പരാഗത ആചാരങ്ങൾ ഒരുത്തരും ദുരാചാരങ്ങളും ഇപ്പോൾ വിദ്യാഭ്യാസം കിട്ടിയതോടെ അത്തരം ദുരാചാരങ്ങളില് നിന്ന് ഇപ്പം പരമ്പരാഗതമായ ആചാരങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണെ നമുക്ക് പറയാം അല്ല എന്നു പറയേണ്ട ഒരു ഇതാണ് നമ്മളിപ്പോൾ എത്ര കാലഘട്ടം കഴിഞ്ഞിട്ടും നമ്മളിപ്പോൾ മുറുകെ പിടിച്ചു പോകുന്ന പലതരം ആചാരങ്ങളുണ്ട് ഇപ്പോൾ ഓണത്തിന് പൂക്കളം ഇടുക വിഷുവിനു കണി കാണുക അങ്ങനത്തെ ഓരോ ആചാരങ്ങളൊന്നും ഇപ്പോഴും മുടക്കം കൂടാതെ നടന്നു വരുന്നുണ്ട് മറ്റുള്ള വ്യക്തികള്ക്ക് ദോഷം അല്ലാത്ത സമൂഹത്തിന് ഒരു കുഴപ്പവും ഉണ്ടാക്കാത്ത ആചാരങ്ങള്ക്കൊന്നും ഇപ്പം പ്രത്യേകിച്ച് ഒരു മാറ്റവും ഒന്നും ബാധിച്ചിട്ടില്ല പക്ഷെ വളരെ മറ്റുള്ള വ്യക്തികളെ വേദനിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിനു ചൂഷണം ചെയ്യുന്നതോ അതോ സ്ത്രീകളേയും കുട്ടികളേയും ചൂഷണം ചെയ്യുന്നതോ അങ്ങനത്തെ രീതിയിലുള്ള ആചാരങ്ങള്കൊക്കെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസം ലഭിച്ചതിന്റെ ഭാഗമായിട്ട് കുറച്ചെങ്കിലും എന്താണ് ഒരു എതിര്പ്പ് നേരിടേണ്ടി വന്നിട്ടുള്ളത് അല്ലാതെ വിദ്യാഭ്യാസം കൊണ്ട് ആചാരങ്ങളെ ബാധിച്ചിട്ടൊന്നുമില്ല പിന്നെ പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പണ്ടുകാലങ്ങളിൽ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പല തരത്തിലും ദുരാചാരങ്ങളൊക്കെ ഉണ്ടായിരിന്നു അതൊക്കെ നമ്മുടെ നവോത്ഥാന നായകർ ആണ് തുടച്ചു നീക്കിയിട്ടുള്ളത് അവർ അത് ആശയം സ്പ്രെഡ് ചെയ്തിട്ടുള്ള എന്താണെന്നു വച്ചാൽ വിദ്യാഭ്യാസം വഴിയായിരുന്നു സ്കൂളുകൾ സ്ഥാപിച്ചിട്ട് പിന്നെ ക്ലാസ്സുകൾ നടത്തിയും ഓരോ ഓരോ ആശ്രമങ്ങൾ സ്ഥാപിച്ചിട്ടും അതിലൂടെ നല്കുന്ന വിദ്യ പിന്നെ ഈ വിദ്യാഭ്യാസം എന്നുള്ളത് ഞമ്മൾ ഈ സ്കൂളിൽ പോയി പഠിച്ചു നേടുന്ന വിദ്യാഭ്യാസം എന്നുള്ള രീതിക്കു മാത്രം നോക്കി കാണാതെ നമുക്ക് ലഭിക്കുന്ന അറിവ് സാമ്പ്രദായികമായ രീതിക്ക് പുറത്തു നിന്ന് വിദ്യാഭ്യാസം ലഭിക്കുന്നത് അങ്ങനെ പല തരത്തിലുള്ള വിദ്യാഭ്യാസം ഉണ്ട് അതുവഴി എല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു രീതിക്ക് നമ്മൾ നോക്കുക ആണെങ്കില് വിദ്യാഭ്യാസം ചില പരമ്പരാഗതമായ ആചാരങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നു വേണമെങ്കിൽ പറയാം അതിൽ ഏറ്റവും മോശമായിട്ടുള്ള സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശം നല്കുന്ന അചാരങ്ങളെ ആണ് അത് ബാധിച്ചിട്ടുള്ളത് വേണമെങ്കില് പറയാം ഇപ്പോൾ ഉദാഹരണത്തിന് പറയുവാണെന്നുണ്ടെങ്കിൽ ഈ ഇപ്പം ഈ പണ്ട് മനുഷ്യന് മൃഗ ബലിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ മനുഷ്യനെ ബാലിയൊക്കെ കൊടുക്കുമായിരുന്നു അതൊക്കെ ഇങ്ങനെ ഓരോ അറിവും വിദ്യാഭ്യാസവുമൊക്കെ ലഭിച്ചതിലൂടെയും അപ്പോൾ ഇങ്ങനെ സാമൂഹിക പരിഷ്കര്ത്താക്കളുടെ ഇടപെടലിലൂടെ ഒക്കെയാണ് അതൊക്കെ എന്താണ് നമുക്ക് സമൂഹത്തീന്ന് തുടച്ചു നീക്കാന് പറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ സ്ത്രീകളെ മെന്സ്ട്രുവേഷനുവായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചെടി തട തൊടുവാന് പാടില്ല കിണർ തൊടുവാന് പാടില്ല അങ്ങനെ ചെയ്യാന് പാടില്ല ഇങ്ങനെ ചെയ്യാന് പാടില്ല എന്നു പറഞ്ഞിട്ട് പല തരത്തിലുള്ള ദുരാചാരങ്ങളുണ്ടേനു ഇപ്പോഴതിനൊക്കെ ഒരു പരിധി വരെ വേണമെന്നുണ്ടെങ്കില് നമുക്ക് തുടച്ചുകളഞ്ഞു എന്നു വേണമെങ്കില് വിചാരിക്കാം അതേ മാതിരിയാണ് സൂര്യഗ്രഹണ സമയത്തും പുറത്തിറങ്ങാന് പാടില്ല ഭക്ഷണം കഴിക്കാന് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ എന്താണ് സമൂഹത്തിൽ നിന്നു തുടച്ചു നീക്കാന് നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം വിദ്യാഭ്യാസം കൊണ്ട് നല്ല നല്ല എന്താണ് കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് അത് അപ്പോൾ അതിൽ ദുരാചാരങ്ങൾ ഒക്കെയാണ് ബാധിച്ചിട്ടുള്ളത്